ഹലോ സ്വിഗ്ഗി റസ്റ്റോറൻ്റ് അല്ലെ ഞാനൊരു ഓർഡർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിളിക്കുന്നത് അപ്പം ബിരിയാണി ബിരിയാണിയും പിന്നെ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നത് അപ്പം എത്ര സമയംകൊണ്ട് എത്തും എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു നല്ലോണം വിശന്നിരിക്കുന്നതാണ് ഞാനും കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് ഇനി വീട്ടുകാർക്കും കുറച്ചു ബൾക്കായിട്ട് വേണമായിരുന്നു അപ്പം നിങ്ങളുടെ പിന്നെ ഓർഡറിൻ്റെ ഒരു പരിമിതി എത്രയാണ് സ്ഥലത്തിൻ്റെ പരിമിതി എത്രയാണ് എത്ര കിലോമീറ്ററിനുള്ളിലാണ് ഓർഡർ നൽകുക ഡെലിവറി സമയം എത്രയാണ് ഒരു നാലുമണി നാലുമണി അഞ്ചുമണിയൊക്കെ ആവുമ്പോഴത്തേക്ക് വരും നമ്മൾ രാവിലെ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് അപ്പം വയനാട്ടിൽ അപ്പോൾ ഭക്ഷണമൊന്നും എന്തായാലും വച്ചിട്ട് കഴിക്കാനുള്ള സമയം ഇല്ല അപ്പോൾ ഓർഡർ ചെയ്തിട്ട് പിന്നെ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പൊരു നാലുമണി നാലരയൊക്കെ ആവുമ്പോഴത്തേക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു നമ്മൾ നിങ്ങളുടെ കടേൻ്റെ അവിടെയൊരു പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് നമ്മളും ആ അപ്പം ഒരു ആറുമണിയൊക്കെയാവുമ്പോൾ നാലരയൊക്കെ ആവുമ്പോഴത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഓക്കെ